കൊറോണയുടെ സമയത്ത് എല്ലാവരെയും പോലെ തന്നെ ഞങ്ങളും നല്ല ടെൻഷനിൽത്തന്നെ ആയിരുന്നു എന്താ നമ്മൾ നമുക്ക് മാത്രമല്ല ഈ ലോകം എല്ലായിടത്തും എല്ലാ സ്ഥലത്തും എല്ലാവർക്കും നല്ല ടെൻഷനുള്ള പോലെതന്നെ നമുക്കും നല്ല ടെൻഷനായിരുന്നു എന്ത് ചെയ്യും ഇനി എന്താണ് കാരണം നമ്മൾ ഇങ്ങനെ ഒരു ലോക്കായൊരു സമയം ഉണ്ടായിട്ടില്ല നമ്മൾ മാത്രമല്ല ഈ ലോകം മൊത്തം ലോക്കായി കിടക്കുന്നൊരവസ്ഥയിൽക്കൂടിയാണ് നമ്മൾ അന്നു പോയത് അപ്പം അത് ഭയങ്കരമായിട്ട് എല്ലാവരേയും പോലെതന്നെ നമ്മൾ ടെൻഷനായിരുന്നു പിന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ ഇനി എന്തെന്നുള്ളൊരു ഇത് എല്ലാവരേയും ഉള്ളിലുള്ളതുപോലെതന്നെ നമുക്കു ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതിനെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളും പുറത്ത് പോകുമ്പോൾ നമ്മൾ മാസ്ക് ധരിക്കുക പിന്നെ സാനിറ്റൈസറുപയോഗിക്കുക പോയി വന്നാൽ നമ്മൾ എവിടെയെങ്കിലും ജസ്റ്റ് നമ്മൾ അത്ര ബുദ്ധിമുട്ടുള്ളൊരു സമയത്ത് മാത്രമേ അന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊരു സമയത്ത് നമ്മൾ പുറത്ത് പോയി വരണ സമയത്ത് നമ്മൾ എന്താ കുളിച്ചിട്ട് ഡ്രസ്സ് പുറത്തു നിന്ന് കുളിച്ച് ഡ്രസ്സ് ചൂടു വെള്ളത്തിലിട്ട് മുക്കിയെടുത്ത് എന്നിട്ടാണ് നമ്മളകത്ത് കയറി നമ്മളെ കുഞ്ഞ് കുട്ടികളെയൊക്കെ തൊടുകയോ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നന്നായിട്ട് സാനിറ്റൈസറുപയോഗിച്ച് കയ്യൊക്കെ വൃത്തിയാക്കി കഴുകി പിന്നെ മാസ്ക്കുപയോഗിച്ച് അങ്ങനെ തന്നെയാണ് നമ്മൾ നന്നായിട്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ അതേ രീതിയിൽതന്നെ നമ്മളതിനെ പ്രതിരോധിച്ചിട്ടുണ്ട് പിന്നീട് പിന്നെ നമ്മളെ കുട്ടികളായാലും നമ്മളെ അടുത്ത വീട്ടിലും കൂടിയും പോകാൻ പറ്റാത്തൊരു അവസ്ഥയ്ക്ക് നമ്മൾ ആകെയൊരു ലോക്കായൊരവസ്ഥ അത് നമുക്കിന്ന് ചിന്തിക്കുമ്പം ഭയങ്കര ടെൻഷൻ തന്നെയാണ് അങ്ങനെയൊരു ഇത് ഇനി ഉണ്ടാവരുതെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കണ് അത്രമാത്രം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി അത് നമ്മൾക്കിനിയും ഇനി അങ്ങനെ ഇല്ലാതിരിക്കട്ടെ നമ്മളതിന് പ്രാർത്ഥിക്കാം